ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തുന്നു പറയുമ്പോൾ ഒരു കുളമുണ്ടായിരുന്നു ആ കുളത്തില് കുറെ മീൻ വളർത്തി വളത്തുന്നുണ്ടായിരുന്നു ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു അപ്പൊൾ ഒരു ഒരു ദിവസം പിന്നെ നല്ലൊരു മഴ പെയ്ത സമയത്ത് മഴക്കാലായിരുന്നു ആ സമയത്ത് പിന്നെ മത്സ്യങ്ങളെല്ലാം അങ്ങനെ നല്ല മത്സ്യങ്ങളായിന്നു വലിയ മത്സ്യങ്ങളാണ് എല്ലാം വിറ്റ് പൈസയുണ്ടാക്കുന്ന ഒരിതാണ് ഒരാള് അതിനായിട്ട് നിർത്തിട്ട് ഒരാള് അങ്ങനെ മീൻ വളർത്തിക്കൊണ്ടിരുന്നതാണ് ആ മീനിനെയൊക്കെ ഒരു സമയത്ത് ഒരാള് ആരാന്നറിയില്ല വന്നിട്ട് മൊത്തം മാലിന്യം തളിച്ച് അതില് മുഴുവനും ഇതാക്കിട്ടു മുഴുവൻ മൊത്തം മീനുകളും ചത്ത് തീർന്ന് അതാണ് പിന്നെ ജല മലിനീകരണം പറഞ്ഞാല് മീന് മീനിന് വിഷം കലക്കി വെച്ചതു കൊണ്ടാണ് ആ മീനുകളെല്ലാം ചത്തുപോയത് പിന്നെ അതാണ് ജല മലിനീകരണം അന്ന് ഞങ്ങളുടെ നാട്ടിലുണ്ടായ പ്രത്യേക ഇത് പ്രത്യേകതരം